വാസുദേവൻ നമ്പൂതിരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രകാരൻ കാരണം അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ അത് ഒരു വെറുമൊരു ചിത്രങ്ങൾ മാത്രമല്ല അതിന് ജീവൻ വയ്ക്കുന്നതുപോലെ നമ്മൾക്ക് കാണുമ്പം അതിൽ ഒരു ജീവനുള്ളതു പോലെ തോന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കലയിലൂടെ ചിത്രത്തിലൂടെ ആൾ സമൂഹത്തിലേക്ക് വെളിപ്പെടുത്തുന്നു സമൂഹത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ആരാധകരുള്ളതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു ഒരു സാധാരണ മനുഷ്യൻ പക്ഷെ അദ്ദേഹം വരക്കുന്ന ചിത്രങ്ങളിൽ അതിന് ജീവൻ വയ്ക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ ഒന്നാമത് കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥലം പൊന്നാനിയാണ് മലപ്പുറം പൊന്നാനി